ഹലോ ആരായിരുന്നു ഞാൻ ഒരു ബ്രോക്കറാണ് ആ

നിങ്ങൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് എവിടെയാണ് വീട്

മ്മ് മ്മ് പണിക്കംകുടി നമ്മൾക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ നമുക്ക് അതനുസരിച്ച് ഒരു

ആണോ ആ ആ

അത് അത് നമ്മക്ക് അങ്ങനെ മാത്രം നല്ല ഒരു വീട് ഒന്നും അല്ല അത് അത് നമുക്ക് അതിന് കുറേ മെയിൻറ്റനൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട് അതുപോലെ ഒരു വീടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തു തരാം നമുക്ക് ഒരു ദിവസം ഇങ്ങന ആ വീട് കാണാൻ വേണ്ടി പോകാം നിങ്ങൾ അത് എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സൗകര്യം എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് അറിയിച്ചാൽ മതി

ആ അത് നമുക്ക് പോയി നോക്കാം പിന്നെ നിങ്ങൾക്ക് നല്ല വീടിനോട് നിങ്ങൾക്ക് താൽപര്യം ഉണ്ടെങ്കില് നമുക്ക് ഈ പണിക്കംകുടി മാറ്റിയിട്ട് നമുക്ക് പാറത്തോടുള്ളതൊക്കെ ആണെങ്കിൽ ഒന്നു കൂടി ഇച്ചിരിയും കൂടെ ഒരു വികസനം ഉള്ള ഒരു ഏരിയ ആണ് പാറത്തോട് അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ ഓക്കെ

ഓ ഞാൻ കൂടുതലായിട്ടൊന്നു അന്വേഷിക്കട്ടെ പണിക്കംകുടിയിൽ നമുക്ക് ഇച്ചിരിയും കൂടെ സൗകര്യത്തിൽ കുറച്ചും കൂടെ നല്ല വീട് ഉണ്ടോ എന്ന് ഞാൻ ഒന്ന് അന്വേഷിക്കാം അല്ലെങ്കിൽ ആ പള്ളിക്ക് അകത്തായിട്ട് കണ്ട ആ സ്ഥലത്ത് സ്ഥലം ഒന്ന് നോക്കാം അതിനെ കുറിച്ചു എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ദിവസം നിങ്ങൾ വന്നു അത് കണ്ടാൽ മതിയല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് മേടിക്കാമല്ലോ ഓ ആ ഓക്കെ ഓക്കെ ആ വെളളത്ത് അത് ശരി ആ ആ വരും ആ അത് അത് അന്വേഷിക്കാം നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം ഉള്ള സ്ഥലം നമുക്ക് അറിയാം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വീട് മേടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളമാണല്ലോ നമുക്ക് വളരെ വെള്ളം വഴിയാണല്ലോ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ആ അപ്പം നമ്മൾക്ക് അത് അനുസരിച്ചു ആ അത് അനുസരിച്ചു നമുക്ക് ആ നമ്മൾക്ക് അത് അനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു വീട് നമുക്ക് നോക്കാം അതൊക്കെ പള്ളിയുടെ അടുത്ത് തന്നെ നമുക്ക് ഒന്നു കൂടെ ആലോജിക്കാം ആ ആ ആ

ആ ശരി ആ ആ അത് തന്നെ ആ അപ്പം നിങ്ങൾക്ക് ഞാൻ ആ നിങ്ങൾക്ക് സൗകര്യം ഉള്ള ഒരു ദിവസം നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് അത് എപ്പം വേണമെങ്കിലും നമുക്ക് അത് പോയി കാണാം ഞാൻ അവരുമായിട്ടൊന്ന് ഓൺറുമായിട്ടൊന്ന് ഒന്ന് കണ്ടൂ സംസരിച്ചു സംസാരിക്കാം കേട്ടോ ആ ആ ശരി മ്മ് ആ എന്നാൽ എന്നാൽ ശരി ആയിക്കോട്ടെ